ഹലോ മാതാ ഡ്രൈവിങ് സ്കൂൾ ആഹാ ഇവിടെ റ്റൂ വീലറും ഫോർ വീലറും ഓടിക്കുന്നുണ്ടേ ആഹാ എവിടെയായിരുന്നു വീടെവിടെയായിരുന്നു എപ്പോഴൊക്കെ വരാൻ പറ്റും നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് നടത്തുന്നത് രാവിലെ ഉണ്ടൊരെണ്ണം വൈകീട്ടുണ്ടൊരെണ്ണം ഉച്ചക്കായിട്ടുണ്ടൊരെണ്ണം നിങ്ങളുടെ സമയം വെച്ചിട്ട് നമുക്കതെ എപ്പം വേണേ മാറ്റിയെടുക്കാമേ ആ സമയമനുസരിച്ചല്ലാ ഓരോ പാക്കെയ്ജാണേ ആറ് മാസം കൊണ്ട് പഠിപ്പിക്കുന്നതുണ്ട് ഒരു മാസം കൊണ്ട് പഠിപ്പിക്കുന്നതുണ്ട് ഒരു മാസം കൊണ്ട് പഠിപ്പിക്കുന്നതിന് എണ്ണായിരത്തി മുന്നൂറും ആറ് മാസം കൊണ്ട് പഠിപ്പിക്കുന്നതിന് ആറു മാസം കൊണ്ടു പഠിപ്പിക്കുന്നതിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും പതിനഞ്ച് പതിനഞ്ച് റേറ്റാണ് അഹാ അപ്പം എ അ എട്ട് മുന്നൂറുണ്ടേ എട്ട് മുന്നൂറ് നിങ്ങൾക്ക് ഏതു സമയമായിരിക്കും വേണ്ടത് ഉച്ച മുതൽ വൈകീട്ട് വരെ മതിയോ നാല് മണിക്ക് നമുക്കൊരു ബാച്ചുണ്ടേ അതിനു മുന്നേ രണ്ട് അൻപതിനുണ്ട് നമുക്കൊരെണ്ണം രണ്ട് അൻപത് തൊട്ട് മൂന്നേ അൻപതു വരെ ഉണ്ടേ അതു മതിയോ അ വേറെന്തെങ്കിലും വേണമായിരുന്നോ എട്ട് മുന്നൂറാണേ നമുക്കിപ്പൊരാൾ ഫീമെയിൽ സ്റ്റാഫുണ്ടേ മിനി എന്നാണ് പേര് മിനിയിപ്പോൾ രണ്ടു മൂന്ന് റൂട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല സമയം ആ മിനിയുടെ സമയം അനുസരിച്ച് നമുക്കത് ശരിയാക്കിത്തരാം മിനി എന്തായാലും സമ്മതിക്കുമേ മിനിക്കെപ്പോഴാണ് വരാൻ പറ്റുന്നതെന്നു വെച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസമൊന്നു വന്നാൽ മതി ഇത് എവിടെയിട്ടാണ് ടിച്ചറുടെ സ്ഥലം എവിടെയാണ് മുരിക്കശ്ശേരിയിലാണോ അപ്പം എന്നും മുരിക്കാശ്ശേരിയിൽ നിന്ന് അടിമാലി വരെ വന്നു പഠിക്കുകയാണോ അതോ ഞങ്ങൾ മുരിക്കാശ്ശേരിയിലേക്ക് ഉച്ചക്കൊരു ഉച്ചക്കൊരു ഇതു വരുന്നുണ്ടേ അന്നേരം മതിയോ ഉച്ചക്കു വരുന്ന ബാച്ചിൽ മതിയോ ആഹാ അ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിങ് സ്കൂളിൽ ഒന്നു വരണം ഒന്നു വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചൂ കൂടി അ വന്നു കണ്ട് നമ്മുടെ സ്റ്റാഫിനെയൊക്കെ ഒന്നു പരിചയപ്പെടുമ്പോഴേ ഇല്ല ഇല്ല ഇല്ല നിങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത് എന്തോ അത് നിങ്ങൾ റ്റൂ വീലറാണോ ഫോർ വീലറാണോ എടുക്കുന്നത് രണ്ടു ഒരുമിച്ചെടുക്കുന്നുണ്ടോ അതോ നമുക്ക് റ്റൂ വീലർ തന്നായിട്ടുണ്ട് ഫോർ വീലർ തന്നായിട്ടുണ്ട് ഏതാണ് വേണ്ടത് എ ആ എന്നാൽ ഫോർ വീലർ തന്നതായിട്ടുള്ളതുണ്ട് അഹാ എന്തോ ആ നമ്മുടെ മെയിൽ സ്റ്റാഫുകളാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ചായിരുക്കും നമ്മളത് വെയ്ക്കുന്നത് അതു കുഴപ്പമൊന്നുമില്ല അവരെല്ലാവരും ഫുൾ ടൈം വണ്ടിയിലാണെങ്കിലും ഈ നമ്മൾ പോകുന്ന കാറിലൊക്കെ ആണെങ്കിലും അതായത് നമ്മൾ പരിശീലിപ്പിക്കുന്ന കാറിൽ നിന്നൊക്കെ ആണെങ്കിലും ക്യാമറയൊക്കെ ഉള്ളതു കൊണ്ടു തന്നെ നിങ്ങൾ പേടിക്കാനുള്ളതൊന്നുമില്ല നമ്മളെപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കുമേ അതു കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഫീമെയിൽ വേണമെന്നുള്ളത് കൊണ്ടു തന്നെ നമ്മൾ ഫീമെയിൽ ട്രൈനറെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല അദ്ദേഹവും ഭയങ്കര കമ്പനി ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുക അതു കൊണ്ട് ടെൻഷനാകേണ്ട കാര്യമില്ല കേട്ടോ എന്തായാലും തിങ്കളാഴ്ച നമ്മുടെ മാതാ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന് പേരൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്യാണേ ആധാർ കാർഡ് കൊണ്ടു വരണം ശരി